വൈന്ഷോപ്പാണേ എന്തൊക്കെയാണ് സാറിന് വേണ്ടത് വിസ്ക്കീ വിസ്കീ സിഗ്നേച്ചറുണ്ട് മാാക്കിൻതോഷ് ഉണ്ട് ആ അതു രണ്ടുമേ ഉള്ളൂ വിസ്കിയില് സിഗ്നേച്ചറിന് ആയിരത്തി ഇരുന്നൂറ് പിന്നെ മാക്കിൻറോഷിന് രണ്ടായിരം ബ്രാണ്ടി എമ്മെച്ച് വി എസോപ്പി ഹണീബീ റമ്മ് റമ്മില് ബെക്കാടി ഇണ്ട് മൂവ്മെന്റുണ്ട് സാറിന് ഏതാണു വേണ്ടത് എവിടെയാണു സാറിന്റെ സ്ഥലം ബിയറുണ്ട് ബിയര് കിങ് ഫിഷറുണ്ട് കോൾട്ട് ഉണ്ട് കങ്കാര ഇണ്ട് ബുള്ളറ്റ് ഉണ്ട് ബഡ്വേസർ ഉണ്ട് ഏതാണു വേണ്ടത് ആ വൈനുണ്ട് ആ ജവാനുണ്ട് ആ ലിറ്റര് മാത്രമേ ഉള്ളൂ വരിക ഒണ്ടല്ലോ ഉണ്ട്

ആകട്ടെ ആയിക്കോട്ടെ അവിടുന്ന് ബില്ല് തരാം ശരി